ഹലോ ഇത് സുധീഷ് ഡോക്ടർ ആയിരുന്നോ എനിക്ക് കുറച്ചു ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് തലവേദനയുണ്ടായിരുന്നു ആ ഞാൻ മുന്നേ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു മാനന്തവാടി തന്നെ

കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു ആ ആ ഉണ്ടായിരുന്നു ഇപ്പം അത് തീർന്നു അപ്പോഴാണ് ഞാൻ മറ്റേ ഡോക്ടറെ കാണിച്ചത് ഇല്ല ഇല്ല ഇല്ല ഇല്ല ആദ്യം ചെയ്താരുന്നു ആ അപ്പം പിന്നെ ഞാൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഡോക്ടർ അവിടെ നിന്നു പോയി എന്നു പറഞ്ഞത് റിസൾട്ടൊക്കെ ഓ കുഴപ്പില്ലായിരുന്നു മ്മ് അ ഞാൻ അയച്ചു തരാം ആഅ ആഅ ഞാൻ ഈ ആ ഞാൻ ആ എനിക്ക് രാത്രിക്ക് ശരിക്ക് ഉറക്കം വരുന്നില്ല

ആ കുറച്ചു ദിവസമായി ആ കാണിക്കായിരുന്നു ഇല്ല ഇല്ല തോന്നുന്നില്ല മ്മ് ആ കാണിക്കാം പിന്നെ ആ ഈ കാലിൻ്റെ അടിയിൽ കാലിൻ്റെ അടിയിൽ എന്തോ ഒരു വെള്ള കളറ് പോലെയൊക്കെ വരിക അപ്പം അതൊക്കെ ഭയങ്കരം ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് ആ

മ്മ്